നമ്മൾ നമ്മളെ കൂട്ടായ്മയിൽ പിന്നെ ഓരോ സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിൽ വാഹനം ഓടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ബസിന് ബസ് തന്നെയാണ് ബസ് കൂടുതൽ ബസ് അനുവദിക്കണം അല്ലെങ്കിൽ നമുക്ക് റോഡ് മെച്ചപ്പെട്ടാൽത്തന്നെ ആൾക്കാർ ബസ് അതിലേ കൂടെ ഓടാൻ പറ്റുള്ളൂ റോഡ് ഈ പിന്നെ പൊട്ടി പൊളിഞ്ഞ് കട്ടറൊക്കെ ആയിട്ടുള്ള റോഡ് ആണെങ്കിൽ ഒരു വാഹനവും വിളിച്ചാൽ വരില്ല ഓരോ ഈവൻ ഓട്ടോറിക്ഷകാരനോട് പത്ത് രൂപ കൂടുതൽ താരാമെന്നു പറഞ്ഞാൽ പോലും അവരു വരില്ല അപ്പോൾ ഗതാഗത മാർഗം മെച്ചപ്പെടുത്താൻ വേണ്ടീട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ റോഡൊക്കെയൊന്നു നന്നാക്കി എടുക്കുക എന്നാണ് നല്ല റോഡ് ഉണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചാലും ആൾക്കാർ വരും ഇല്ലെങ്കിൽ വരില്ല അവർക്ക് വണ്ടിക്ക് പണി അതായത് വണ്ടിക്ക് പണിയാവും ഇങ്ങനത്തെ റോട്ടിൽ കൂടെയൊക്കെ ഓടുമ്പോൾ അപ്പം നല്ല റോഡുകൾ രണ്ട് വണ്ടികൾ പോവാൻ പാകത്തിനുള്ള റോഡുകളൊക്കെ ആവുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം യാത്രക്ക് നമുക്ക് സ്മൂത്ത് ആയിട്ട് യാത്ര ചെയ്യാം അവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെയുള്ള റോഡുകളുടെ സൗകര്യം കൂട്ടുക പിന്നെ വാഹനങ്ങൾ ഗവൺമെൻറ്റ് എന്തിനാണ് ഈ പ്രൈവറ്റ് ബസിനെ നമ്മൾ ആശ്രയിക്കുന്നത് ഗവൺമെൻറ്റിനു പൈസ കൊടുത്തു ഗവൺമെൻറ്റ് ബസിൽ നമ്മളെ കയറ്റാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഗവൺമെൻറ്റ് ബസുകൾ കൂടുതൽ അനുവദിക്കുക കൃത്യമായിട്ട് ഓട്ടവും നല്ല പെരുമാറ്റവും ഉള്ള ആൾക്കാരെയൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ കുഴപ്പമില്ല ഇപ്പോൾ ഇവിടുന്നു ഒരു ദിവസം എത്ര പേര് ഒരു സ്ഥലത്തുന്ന് പിന്നെ ടൗണുകളിലേക്ക് പോകുന്നുണ്ട് സാധനം വാങ്ങാൻ അവർക്ക് അല്ലെങ്കിൽ ജീപ്പ് ഈ സംഘങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ദിവസം ജീപ്പുകൾ ഓടുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അവിടുന്ന് ജീപ്പ് ഉണ്ടെങ്കിൽ ആ ജീപ്പിൽ കയറി നമുക്ക് ടൗൺ വരെ പോകാൻ പറ്റും അങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ കൈവരുവാണെങ്കിൽ നല്ല കൂട്ടായ്മ ഇപ്പോൾ കുടുംബശ്രീ അല്ലെങ്കിൽ ആണുങ്ങളുടെയൊക്കെ സംഘത്തിലുള്ളോരൊക്കെ ഈ വാഹനങ്ങൾ അതായത് റെയി പിന്നെ ജീപ്പുകളൊക്കെ ഓടിപ്പിക്കും അപ്പോൾ ആ ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം അപ്പം നമുക്ക് ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ഒരു ആൾ തികയുന്നത് അനുസരിച്ച് ജീപ്പെടുക്കുമ്പോൾ നമുക്ക് രണ്ട് ജീപ്പ് ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും